ഹായ് കൊച്ചേ നീയവിടെയെന്നായെടുക്കുവാ നീയാ ജാതിക്കയൊക്കെ പറിച്ചായിരുന്നോ നീയതെല്ലാം പറിച്ചു കൊണ്ടിങ്ങോട്ടു വാ പിന്നെ അതു കഴിഞ്ഞിട്ട് നീ പോയി കുളിച്ചിട്ടു വാ എന്നിട്ടാഹാരം കഴിച്ചിട്ട് നമുക്ക് ഇന്ന് നമുക്ക് നേരത്തേ കുരിശ് വരക്കാം പിന്നെ അനിയൻ അനിയൻ കൊച്ച് വന്നായിരുന്നോ അവനോടും പെട്ടെന്നു കുളിച്ചിട്ടൊക്കെ വരാൻ പറയണം പിന്നെ ആഹാരം കഴിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് കുരിശ് വരക്കാം പാട്ടു പാടാം പ്രാർത്ഥിക്കാം ബൈബിൾ വായിക്കണം പിന്നെ നീയതു കഴിഞ്ഞിട്ട് വേണം കുരിശ് വര കഴിഞ്ഞിട്ടു വേണം നമുക്ക് പഠിക്കാനിരിക്കാനായിട്ട് അപ്പം നിങ്ങൾക്ക് പഠിക്കേണ്ടേ നന്നായിട്ട് പഠിക്കണം പരീക്ഷക്ക് നല്ല മാർക്ക് വാങ്ങണം പിന്നെ പരീക്ഷക്ക് ജയിച്ച് നമുക്ക് നല്ല ഇതു മുന്നോട്ടു പോകാൻ നല്ല അവസരം ഒരുക്കണം എല്ലാം ആ മതിയായിരിക്കും ആ മതി പോ കുറേ പറഞ്ഞിട്ടുണ്ട് മതിയായിരിക്കും